ഞങ്ങളുടെ പ്രദേശത്തുള്ള വിദ്യാഭ്യാസ അല്ല ഗതാഗത സൗര്യങ്ങൾ വിദ്യാഭ്യാസത്തെ തുണയ്ക്കുന്നത് പിന്നെ ബസ് മാർഗമുണ്ട് സ്കൂൾ ബസ്സുണ്ട് കൂടാതെ ഓട്ടോ റിക്ഷ എങ്ങനെയൊക്കെയാണ് റോഡ് മാർഗ്ഗമാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്കുള്ളൂ ഈ റോഡ് മാർഗ്ഗത്തിലൂടെ ഞങ്ങളുടെ ഈ സ്ഥലത്തു ചില സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുവാനായിട്ട് കൊണ്ടു വരുവാനായിട്ട് ബസ് ഒന്നും ഇല്ലാത്തതിനാൽ ബസ് എത്തിപ്പെടാത്തിടത്ത് ഞങ്ങള് ജീപ്പുകളൊക്കെയുണ്ട് ആ ജീപ്പ് മൂഖേന പിള്ളരെ കൊണ്ടുവരികയും കാരണം ഇവിടെ ഒരു മലപ്രദേശമായുള്ള മലയുടെ മണ്ടകളിലൊക്കെ റോഡുകളുണ്ട് ആ റോഡുകളിലൂടെ ബസ്സ് ചെല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ജീപ്പുകള് പോവുകയും അതു വഴിയായിട്ട് കുട്ടികളെ സ്കൂളിലേക്കു കൊണ്ടുവരികയും കുട്ടികൾക്കു വിദ്യാഭ്യാസം അനുകൂലമായ എല്ലാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പിന്തുണയ്ക്കയും ചെയ്യുന്നുണ്ട് പിന്നെ റോഡ് വളരെ ഒത്തിരി കിലോമീറ്ററുകള് താണ്ടി വേണം പോകുവാനായിട്ട് കാരണം ഇവിടുത്തെ മലമ്പ്രദേശമായതുകാരണം ഉൾപ്രദേശങ്ങളുണ്ട് ഉൾപ്രദേശങ്ങളിലെല്ലാം പോയി വേണം കുട്ടികളെ എടുത്തുകൊണ്ടുവരുവാനായിട്ട് പക്ഷെ ഈ ഒത്തിരി ബുദ്ധിമുട്ടുകള് ഏറിയ ഒരു ഇതാണെങ്കിലും ബസ്സ് ചെല്ലാത്തിടവാണെങ്കിലും ജീപ്പ് ചെല്ലുകയും ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുവാനായിട്ട് ഇവിടെ സാധിക്കുകയും ചെയ്യുന്നുണ്ട് പല മാനേജ്മെൻ്റുകളുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ഹിന്ദു മാനേജ്മെൻ്റുണ്ട് ആ മാനേജ്മെൻ്റുകള് അവരുടെയൊക്കെ സ്കൂളുകൾക്ക് ബസ്സുകളൊക്കെ ഉണ്ട് ആ ബസ്സുകൾ വഴിയും ജീപ്പുകൾ വഴിയും ഓട്ടോ റിക്ഷകൾ വഴിയും പിന്നെ ഒക്കെയായിട്ട് കുട്ടികളെ പിൻതുണയ്ക്കുന്നുണ്ട് പിന്തുണയ്ക്കുകയും ഞങ്ങള്ക്ക് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമെന്തെന്നു ചോദിച്ചാൽ ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു കുട്ടികള് പോലും യാത്രാ സൗകര്യത്തിന്റെ കുറവു മൂലം വിദ്യാഭ്യാസം നടത്താതെ വരുന്നില്ല എല്ലാ കുട്ടികളെയും തന്നെയും ഏത് ഉൾപ്രദേശമായാലും ഏതു മലമണ്ടകളായാലും അവിടെയൊക്കെ കുട്ടികൾക്ക് എത്തിപ്പെടുവാനുള്ള സഞ്ചാര മാർഗ്ഗങ്ങള് ഞങ്ങൾക്കുണ്ട് അങ്ങനെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം പഠിക്കുവാനുള്ള സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഈ മാനേജ്മെൻ്റ് സ്കൂൾ ബസ്സുകളും കൂടാതെ ഗവൺമെൻ്റ് സ്കൂളുകൾക്കും ഗവൺമെൻ്റ് അവർക്കതായ പ്രൈവറ്റ് വാഹനങ്ങളുണ്ട് ഗവൺമെൻ്റ് സ്കൂളുകൾക്കും വാഹനങ്ങളുണ്ട് കൂടാതെ പിന്നെ പൊതു ഗതാഗതമായ ട്രാൻസ്പോർട്ട് ബസ്സ് പ്രൈവറ്റ് ബസ്സുകള് അങ്ങനെ പൊതു ഗതാഗതത്തിലൂടെയും അവർക്ക് സ്കൂളുകളിലേക്ക് എത്തിപ്പെടുവാന് സാധിക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളും എല്ലാ വിദ്യാഭ്യാസാലയങ്ങളും ബസ്സ് ചെല്ലത്തക്ക രീതിയിലുള്ള രീതിയിലുള്ള തരത്തിലാണ് എല്ലാ സ്കൂളുകളും കോളേജുകളും ഹൈ സ്കൂളുകളും എൽ പി സ്കൂള് യു പി സ്കൂള് ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ കുഞ്ഞു കുട്ടികളെ ഓട്ടോ റിക്ഷ മാർഗ്ഗത്തിലൂടെ അവരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ വലിയ കുട്ടികൾക്കെല്ലാവർക്കും ബസ് ബസ്സ് കൂടുതലും ബസ്സ് മാർഗ്ഗമാണ് അങ്ങനെ എത്തിക്കുന്നു കുട്ടികൾക്ക് എല്ലാവരും നാട്ടുകാരും പൊതുസമൂഹവും മാതാപിതാക്കളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഒത്തിരി പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പിന്തുണ വഴിയായിട്ട് പിന്നെ ഈ പിന്നെ ബസ്സോ അല്ലെങ്കിൽ ജീപ്പോ എത്താത്ത സ്ഥലത്ത് ഓട്ടോ റിക്ഷയില് ആ ഏരിയയിലുള്ള പേരൻസെല്ലാം കൂടെ ഒന്നിച്ചുകൂട്ടി താങ്ക്യു ഒന്നിച്ചുകുട്ടി ഒന്നിച്ചുകൂട്ടി അവർക്ക് അവര് ഓട്ടോകള് ഒരു മൂന്നാലഞ്ച് ഫാമിലിയില് പത്ത് ഫാമിലി പതിനഞ്ച് ഫാമിലികൾ ഒന്നിച്ചുകൂട്ടി ജീപ്പ് വിളിക്കുകയും മാസത്തിലവർക്കു പൈസ കൊടുക്കുകയും അങ്ങനെ അതു മുഖേന കുട്ടികളുടെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതായത് ഇന്ന് കുഞ്ഞ് ഇന്ന് വിദ്യാഭ്യാസമില്ലെങ്കില് സമൂഹം ഒന്നുമില്ല എന്നുള്ളൊരു ധാരണയുള്ളതു കൊണ്ട് എല്ലാ വിധത്തിലുള്ള വിദ്യാഭ്യാസത്തെ എങ്ങനെയൊക്കെയാണെന്നു പിന്തുണയ്ക്കാൻവേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സഞ്ചാര മാർഗ്ഗങ്ങളും ഇവിടെ ഉള്ള വ്യക്തികൾ കണ്ടെത്തുകയും പേരെന്റ്സും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികാരികളിലും സമൂഹവും ഗവൺമെൻ്റും ഒക്കെ അതിനൊക്കെ പിന്തുണയ്ക്കുകയും അതുവഴിയായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം നൽകുവാൻ സാധിക്കുകയും ഒക്കെ ചെയ്തുവരുന്നുണ്ട് അത് ഒരു വലിയ വലിയൊരു ഉപകാരമായിത്തീർന്നിട്ടുണ്ട് എത്ര സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കില് ആ കുട്ടികൾക്ക് ഇവിടെ എത്തുവാനായിട്ടുള്ള കുട്ടികൾക്കിവിടെ എത്തുവാനായിട്ട് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കില് സ്കൂളിലെ ടീച്ചേഴ്സ് ഗ്രൂപ്പായിട്ട് അവരുടെ ശമ്പളത്തിൽ നിന്നുള്ള ശതമാനമെടുത്ത് വണ്ടി കണ്ടെത്തുകയും ആ വണ്ടി പാവപ്പെട്ട കുട്ടികളെ കൊണ്ടുവരുവാനായിട്ട് ജീപ്പല്ലെങ്കില് ഓട്ടോ റിക്ഷ എടുക്കുകയും അവര് അവരുടെ വരുമാനത്തില്നിന്നാണ് അവര് പങ്ക് വച്ചുകൊണ്ട് കുട്ടികൾക്കു വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നുണ്ട് അത് അതിന് ഒരു വലിയ മാതൃക തന്നെയാണ് ഞങ്ങളുടെ ഈ സമൂഹം വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ അപ്പോള് എല്ലാ തരത്തിലുള്ള ഇത് ഇനിയും ഈ പിന്നെ കൂടാതെ അത്രമേൽ ബുദ്ധിമുട്ടുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ ഓട്ടോയോ ജീപ്പോ കയറാടത്താണെങ്കില് സ്കൂട്ടർ വഴിയായിട്ടോ എല്ലാം ഉപയോഗിക്കുന്നു അപ്പോള് ബസ്സ് ഉപയോഗിക്കുന്നു ജീപ്പുപയോഗിക്കുന്നു ഓട്ടോ റിക്ഷ ഉപയോഗിക്കുന്നു സ്കൂട്ടി ഉപയോഗിക്കുന്നു സൈക്കിളുപയോഗിച്ച് പല എല്ലാ തരത്തിലുള്ള മാർഗ്ഗങ്ങളുപയോഗിച്ച് ഈ പ്രദേശത്തുള്ള വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുവാനായിട്ടു സാധിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെയുള്ള ഒരു കുട്ടി പോലും വിദ്യാഭ്യാസം ഇല്ലാതെ മാറി നിൽക്കുന്നില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുവാനായിട്ട് ഇങ്ങനെ തരത്തിലുള്ള ഈ തരത്തിലുള്ള സഞ്ചാര മാർഗ്ഗങ്ങള് ബസ് മാർഗ്ഗങ്ങളെ ഓട്ടോ മാർഗ്ഗങ്ങളെ ജീപ്പ് മാർഗ്ഗങ്ങളെ എല്ലാം ഉപയോഗിക്കുന്നു ഇതിനായിട്ട് ഞങ്ങൾക്ക് റോഡ് മാർഗ്ഗമാണുള്ളത് ഈ റോഡ് മാർഗ്ഗം എല്ലാം ഞങ്ങളുടെ എല്ലാ തലത്തിലും റോഡുകളും ഒക്കെ ഉണ്ട് അവിടെയെല്ലാം ഞങ്ങളെത്തിച്ചരുകയും അവിടെയെല്ലാം ഞങ്ങള് പറയുകയും അവിടെയെല്ലാം ഞങ്ങളുടെ കുട്ടികൾക്കു വിദ്യാഭ്യാസം നൽകുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഞങ്ങള് ഇങ്ങനെയുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഏറ്റവും ഭംഗിയായിട്ടു നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനായി മാനേജ്മെൻ്റുകളും ഗവൺമെൻ്റ് തലങ്ങളും പ്രാദേശിക തലത്തിലുള്ള ഗവൺമെൻ്റ് അധികാരികളും ഇതിനൊക്കെയായിട്ട് വളരെ അധികം സപ്പോർട്ട് നല്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം തോളോടുതോള് ചേർന്നു വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും പങ്കെടുക്കുകയും അതിനായിട്ട് അവരെല്ലാം ഇതില് സംബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങള് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി പോലും സഞ്ചാരമാർഗ്ഗം കിട്ടാതെ അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി പോകുന്നില്ല എല്ലാവർക്കും ഈ മാർഗങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ചെയ്യുവാനായിട്ടും പഠിക്കുവാനായിട്ടും ഉന്നത തലങ്ങളിലേക്കെത്തുവാനുമായിട്ടും സാധിക്കുന്നുണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന എല്ലാ വ്യക്തികളും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്